ഞങ്ങളുടെ ദേശത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സീസണിൽ ഒന്നാണ് മകരവിളക്ക് മകരജ്യോതി സ് ദർശനം അത് ലോകത്തുള്ള പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് ഈ ഉത്സവം കാണാനായിട്ട് വരുന്നുണ്ട് അന്നേ ദിവസം നെ ആ ക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവമാണ് നടന്ന് വരുന്നത് പ്രത്യേകിച്ച് പല പല പൂജകളും നടക്കാറുണ്ട് ഇത് കാണാനായിട്ട് ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത് നിന്നും ഈ ഭക്തജനങ്ങൾ ഇവിടെ ആ വന്ന് ചേരാറുണ്ട് ഇത് അത് കൂടാതെ അതുകൂടാതെ പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മകരജ്യോതി എന്ന് പറയുന്നത് സാധാരണ മകരമാസത്തിലാണ് മകരമാസം ഒന്നാം തീയതിയാണ് ഇത് ആഘോഷിച്ച് വരുന്നത് അതിന് ഈ അയ്യപ്പക്ഷേത്രം അവിടെ ഒരു അയ്യപ്പക്ഷേത്രം ഉണ്ട് അതിൻ്റെ ഒരു കോണിലുള്ള ഒരു ഒരു മലയുണ്ട് ആ മലയുടെ ഭാഗത്ത് അതിൻ്റെ പേര് പൊന്നമ്പലമേട് എന്നാണ് ആ മലയുടെ പേര് അതിന് മുകളിലുള്ള ഒരു അതിന് മുകളിൽ വനക്ഷേത്രത്തിലാണ് ഈ ദീപാരാധന നടക്കുന്നത് അതിന് സാധാരണ ആ ഞങ്ങൾ വിളിക്കുന്നത് മകരജ്യോതി മകരജ്യോതി എന്നാണ് നെ അതിനെ വിശേഷിപ്പിച്ച് പറയുന്നത് പിന്നെ അത് മകരജ്യോതി സാധനം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇതിങ്ങനെ തെളിയിച്ച് കാണും തെളി തെളിഞ്ഞ് വരും ഇതിനാണ് മകരജ്യോതി എന്ന് പറയുന്നത് ശബരിമല സന്നിധിയിൽ നിന്ന് ഈ ദൃശ്യം ന കാണുവാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അനവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ശബരിമലയുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു ഒരു അ ദിവ്യ അത്ഭുതമായിട്ടാണ് ഇതിനെ വർഷങ്ങളായിട്ട് ആൾക്കാർ ഇതിനെ കണ്ട് വരുന്നത് അത് പിന്നെ ചില ആളുകളിൽ ഇത് ദൈവീകമല്ല ഇത് ആൾക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി ആരോ വിളക്ക് കത്തിക്കുന്നതാണ് എന്നൊരു വിവാദം കൂടി ന് ഏതാണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു അന്ന് ഇങ്ങനൊരു വിവാദം ദേവസ്വം ബോർഡുകാർക്ക് ഉണ്ടായി അവർ അതിനെ ന് സം നെ അത് അതിൻ്റെ കർപ്പൂരം ഇങ്ങനെ ഏതാണ്ട് കർപ്പൂരം എന്തോ കത്തിക്കുന്നതാണെന്നാണ് അങ്ങനെയാണ് മകരവിളക്കിലെ മകരജ്യോതി വരുന്ന് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ന് അങ്ങനെ ഒരു ഇത് ഉൺ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അവസാനം ശബരിമലയിലെ മുതിർന്ന തന്ത്രി ന് രു പേര് നെ കൺ മഹേശ്വരൻ ഒരു പുള്ളിക്കാരൻ അത് അവസാനം സമ്മതിക്കുക ഉണ്ടായി മകരവിളക്ക് ന് ഒരു പ്രതീകാത്മകമായ ഒരു ഒരു രു ദീപാരാധനയാണ് സൂചിപ്പിച്ച് വരുന്നത് അതുകൊണ്ട് അത് വ്യക്തമാക്കി അതിനുള്ള മകരജ്യോതിയെ ചുറ്റിപറ്റി നിൽക്കുന്ന ഒരു ആ ദുരൂഹതയ്ക്ക് അവസാനം ഒരു ന് ഒരു വിരാമം വിരമ വിരാമം ഉണ്ടായി പിന്നെ ഉണ്ടായത് ന് ഇത് സാധാരണ അവിടെ പൂജ സംക്രമണപൂജ അങ്ങനെ ഉണ്ടാകാറുണ്ട് അതിനോടനുബന്ധിച്ച് പല ചടങ്ങുകൾ അവിടെ നടത്താറുണ്ട് പൂജകൾ പിന്നെ തിരുവാഭരണം ചാർത്ത് ചാർത്തുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് അയ്യപ്പൻ്റെ എഴുന്നള്ളത്ത് ഇങ്ങനെ ഒള്ള കുറേ ചടങ്ങുകൾ ഈ മകരജ്യോതിയെ സംബന്ധിച്ച് നടക്കാറുണ്ട് കൂടാതെ അവിടെ ഗുരുതി എന്ന് പറഞ്ഞൊരു സംഭവവും കൂടി ഉണ്ട് ന് അവിടെ പന്തങ്ങളെ ഈ പന്തങ്ങളെ ഒക്കെ സാക്ഷിയാക്കി ആണ് അവർ ആ സംഭവം അവിടെ ഉടലെടുക്കുന്നത് കൂടാതെ അതിനോട് ചേർന്ന് അന് സമാപനമായ ചില ചടങ്ങുകൾ കൂടെ അവിടെ നടത്താറുണ്ട് ആ ദിവസം ന് സന്ദർശകർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല ഏകദേശം ആറ് മണിയോട് കൂടി ആ അത് ന് എ ആറ് ആറ് മണിയോടുകൂടി അവരുടെ ഒരു പ്ര പ്രതിനിധി അവിടെ എത്തും അതിന് ശേഷം അതിന് മുമ്പ് ഈ തിര് തിരുവാഭരണ ഘോഷയാത്ര ഘോഷയാത്ര പതിനെട്ടാംപടി ഇറങ്ങുന്ന നെ തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും ഈ സമയം ന് രാജപ്രതിനിധി അല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള വ് ചില വിവരങ്ങൾ